ഒരു സംഘടത ബൈക്കിംഗ് പരിപാടിയിലൊന്നും റെയ്സിങ്ങിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല എന്നിരുന്നാൽക്കൂടി ദീർഘദൂരം ബൈക്ക് യാത്രകൾ ചെയ്ത ഒരു ചരിത്രം എനിക്കുണ്ട് അതെന്നു പറഞ്ഞാൽ കാസർഗോഡ് നിന്ന് ആണ് എൻ്റെ യാത്രകളൊക്കെത്തന്നെ ആരംഭിക്കുന്നത് കാസർഗോഡ് നിന്ന് മൂകാംബികയാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ തവണ ഞാൻ പോയിട്ടുള്ള യാത്ര എന്നു പറയുന്നത് പിന്നീട് പറയാൻ പറ്റുന്നത് കാസർഗോഡ് നിന്ന് കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് കേട്ടോ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് നിന്ന് തലക്കാവേരി കൊടക് എന്നു പറയുന്ന കൊടക് ഡിസ്ട്രിക്റ്റ് എന്നു പറയുന്ന അവിടേക്കായിരുന്നു പിന്നീട് കൂടുതലായിട്ട് യാത്ര ചെയ്തിട്ടുള്ളത് അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ ദീർഘദൂര യാത്രയെന്നു പറയുന്നത് ഞാൻ ചെയ്തിട്ടുള്ളത് കാഞ്ഞങ്ങാട് നിന്ന് തുടങ്ങി ചിക്ക്മംഗ്ളൂരത്തി ചിക്ക്മംഗ്ളൂർ നിന്ന് ഹമ്പി ഹമ്പിയിൽ രണ്ട് ദിവസം ചിലവഴിച്ചു തിരിച്ച് ജോഗ് വാട്ടർഫാൾസ് വഴി തിരിച്ചുവരുന്നൊരു യാത്രയായിരുന്നു ആ യാത്രയെന്നു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അവസാനമായിരുന്നു ഏറെ ആ ഓർമ്മകൾ മനസ്സിൽ തങ്ങി നിർത്തിയൊരു യാത്രയാണത് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു യാത്ര എൻ്റെ ഭർത്താവുമൊത്തുള്ളൊരു യാത്രയായിരുന്നു ആദ്യത്തെ ദീർഘദൂര യാത്രയായിരുന്നു എഫ് ഇസെഡെന്ന് പറയുന്ന ബൈക്കിലായിരുന്നു ഞങ്ങളുടെ യാത്രയൊക്കെത്തന്നെ ഒരു ദിവസം രാവിലെ കാഞ്ഞങ്ങാടുനിന്ന് തിരിച്ച് ഞങ്ങൾ അന്ന് രാത്രി ചിക്ക്മംഗ്ളൂരെത്തുകയും അന്ന് വൈകുന്നേരം ചിക്ക്മംഗ്ളൂരെത്തുകയും അന്ന് വൈകുന്നേരവും രാത്രി ഒരു സമയം വരെ അവിടെയുള്ള സ്ഥലങ്ങൾ ചുറ്റി കാണാവുന്നിടത്തോളം കണ്ട് പിറ്റേന്ന് രാവിലെ അവിടെനിന്ന് തിരിച്ച് ഹമ്പിക്കുള്ള യാത്രയിൽ വൈകുന്നേരം രാത്രി ഒൻപത് മണിയോടുകൂടി ഹമ്പിയിലെത്തുകയും അവിടെ നിന്നുകൊണ്ട് പിറ്റേന്ന് മൊത്തം ഹമ്പിയിൽ കാണാവുന്നിടത്തോളം കറങ്ങി അതേപോലെ അതിൻ്റെ പിറ്റേദിവസവും കറങ്ങി തിരിച്ച് മൂന്നാം ദിവസം അല്ലെങ്കിൽ നാലാം ദിവസം ഹമ്പിയിലുള്ള മൂന്നാം ദിവസം തിരിക്കുകയായിരുന്നു ചെയ്തത് അത് ജോഗ് വാട്ടർഫോൾസ് വന്നു തിരിച്ച് കാസർഗോഡ് കാഞ്ഞങ്ങാട് വരികയാണുണ്ടായത് അനുഭവംന്ന് എന്നു പറയുന്നത് വളരെ നല്ല അനുഭവമാണ് എനിക്ക് ബൈക്ക് യാത്രകൾ ഇഷ്ടമുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല വളരെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് തോന്നി ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽക്കൂടി വലിയ ആരോഗ്യപ്രശ്നങ്ങളോ മറ്റൊന്നും ഇല്ലാതെ പോയിവരാനും മറ്റ് ആക്സിഡൻ്റ് പോലുള്ള ഇഷ്യൂസോ ഒന്നും ഉണ്ടാകാതെ പോയിവരാനും സാധിച്ചു നല്ലൊരു അനുഭവമായിരുന്നു എനക്കുണ്ടായിരുന്നത്